അയ്യോ രമ്യ ഗ്യാസ് ഏജൻസി അല്ലേ ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് വിളി സാധനം തന്നപ്പോൾ അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഗ്യാസ് മറ്റൊരു ദാതാവിന് കൊടുക്കുകയാണ് കാരണം എനിക്ക് മാറേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് റദ്ധാക്കി തരണം എൻ്റെ റഫറൻസ് നമ്പർ നാന്നൂറ്റി പന്ത്രണ്ടാണെ അപ്പം പെട്ടെന്നു തന്നെ റദ്ദാക്കി തരണം കാരണം അദ്ദേഹത്തിന് വളരെ ആവശ്യമുണ്ട് കാരണം അവർ പുതിയ വീട് വെച്ചു അപ്പോൾ പിന്നെ എത്രയും അവർക്ക് അവരുടെ വീട്ടിൽ ഇത് വേണം വേണ്ടതു കൊണ്ട് അവർക്കതു കൊടുക്കണം അപ്പം എനിക്കും മാറണം പെട്ടെന്നു സൗകര്യത്തിനു വേണ്ടിയാണ് അപ്പോൾ പെട്ടെന്നു ചെയ്തു തരികയാണെങ്കിൽ എളുപ്പമായിരിക്കും പെട്ടെന്ന് വൈകരുത് കേട്ടോ കാരണം ഞാനാണെങ്കിൽ എപ്പോഴും ഇവിടെ ഏജൻസിയെ വിളിച്ചു പറയുമ്പോൾ ഇന്നു പറയുന്ന കാര്യം അവർ അടുത്ത മാസം ചെയ്തു തരത്തുള്ളൂ പക്ഷേ ഇക്കാര്യത്തിൽ എങ്കിലും കുറച്ച് കൃത്യനിഷ്ഠത പാലിക്കണം കാരണം എത്ര ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗ്യാസ് കൊണ്ട് ഉപയോഗമുണ്ട് അപ്പോൾ പിന്നെ ഈ ഗ്യാസെന്നു പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങൾ പെട്ടെന്നു തന്നെ ചെയ്തു തരണമെന്നു ഞാൻ പറയുന്നതു കേട്ടോ വേറെ വേറെ ഉള്ളത് മാറ്റി തന്നാൽ മതി വേറെ ബുക്കിങ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടല്ലോ